ഇപ്പോൾ വയനാട് ജില്ലയിലെ കാലാവസ്ഥായെന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറയുക താപനിലയിലൊക്കെയെന്ന് പറയുമ്പോൾ ഒരിടയ്ക്ക് എന്താ പറയുക ഭയങ്കര താപനിലയായിരുന്നു കാരണം വേനൽക്കാലത്ത് വയനാട്ടിൽ ചുട്ടുപൊള്ളുന്ന ചൂടായിരുന്നു കാരണം കുറച്ച് ഉയർന്ന പ്രദേശം കൂടി ആയതുകൊണ്ടുതന്നെ അത്യാവശ്യം നല്ല ചൂട് തന്നെയായിരുന്നു വയനാട്ടിലുണ്ടായിരുന്നത് എന്നാൽ മഴ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മഴയുള്ള സമയത്തെന്നു പറയുമ്പോൾ എന്താ പറയുക വെള്ളപ്പൊക്കം വയനാട്ടിൽ നല്ല രീതിയ്ക്കു തന്നെ ബാധിച്ചിരുന്നു കാരണം ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നശിക്കുകയുണ്ടായി പിന്നെ പുഴയോടു ചേർന്നു കിടക്കുന്ന വീടുകളാകുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നത് പിന്നെ ഉരുൾപൊട്ടുക എന്താ പറയുക മലയുള്ള സ്ഥലങ്ങൾ മലപോലെയുള്ള സ്ഥലങ്ങൾ കുന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് ഉരുൾപൊട്ടുക അങ്ങനത്ത ബുദ്ധിമുട്ടൊക്കെ കുറേ പേർക്കുണ്ടായിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വയനാട്ടിലുണ്ടായിട്ടുണ്ട് പിന്നെ എന്താ പറയുക വയനാട്ടിൽ പൊതുവേ വേനൽക്കാലം ആയിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് വെള്ളപൊക്കം പിന്നെന്താ പറയുക വേനൽക്കാലത്തൊക്കെയാണെങ്കിൽ കൂടുതലായിട്ടും ഈ വെള്ളത്തിനുള്ള ക്ഷാമമൊക്കെ വയനാട്ടിൽ കണ്ടു വരുന്നുണ്ട് കാരണം ഉയർന്ന പ്രദേശമായതുകൊണ്ടുതന്നെ വെള്ളം കൂടുതലും താഴ്ന്ന് നിൽക്കുന്നതിനാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ മഴക്കാലത്താണെങ്കിൽ വെള്ളപ്പൊക്കം കൂടുക അങ്ങനത്ത ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം കൂടുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടങ്ങനെയും ഉണ്ടാകുന്നുണ്ട് രണ്ടും ആയിക്കഴിഞ്ഞാലും വയനാട്ടുകാർക്ക് അത്യാവശ്യം നല്ല രീതിക്കുതന്നെ ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ടു വരുന്നുണ്ട്